നീന്തൽ പരിശീലനം രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് പരിശീലനം സാധാരണഗതിയിൽ നടത്താൻ പാടുള്ളൂ ഭക്ഷണം വയറുനിറയെ കഴിച്ചുകൊണ്ട് നീന്തൽപരിശീലനം നടത്താൻ പാടില്ല ലഘുവായ ഭക്ഷണം കഴിച്ചുകൊണ്ടുമാത്രമേ നീന്തൽ നീന്തൽ പരിശീലനം നടത്തുകയുള്ളു സാധാരണഗതിയിൽ നല്ല നീന്തൽ നീന്തലിനു മുൻപ് നല്ല വ്യായാമം എക്സർസൈസുകൾ ചെയ്ത് ശരീരം നീന്തലിന് പരുവത്തിൽ വഴുകി എടുത്തതിനുശേഷമാണ് സാധാരണ നീന്തുക നീന്തൽ പരിശീലനം നടത്തുമ്പോൾ ആവശ്യമായ വിശ്രമസമയങ്ങൾ എടുക്കും അപ്പോൾ ലഘുവായ ഭക്ഷണങ്ങളും വെള്ളവും ഉപയോഗിക്കാവുന്നതാണ് വയറ് ഫുള്ള് ആയി വെള്ളമോ ഭക്ഷണോ കഴിച്ച് നീന്തൽ പരിശീലനം നടത്താൻ പാടുള്ളതല്ല അത് ശരീരത്തിന് ദോഷകരമായി ബാധിക്കും പിന്നെ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് നീന്തൽ പരിശീലനം സാധാരണ ഗതിയിൽ നടത്താറുളളൂ അത് കൂടുതലും അന്തരീക്ഷ ഊഷ്മാവ് കൂടിനിൽക്കുന്ന സമയാണ് മറ്റ് സമയം ഈ സമയത്ത് ചൂട് കുറവായതുകൊണ്ടും ശരീരത്തിന് അതാണ് ഏറ്റവും കൂടുതൽ പോഷകം ജലാംശവും നിലനിർത്താൻ ഉതകുന്നത് ഈ സമയങ്ങളിലാണ് അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നീന്തൽ പരിശീലനം രാവിലെയും വൈകുന്നേരങ്ങളിലുമായി നടത്തുന്നത് നീന്തൽ പരിശീലനത്തിനുമുൻപ് ധാരാളം എക്സർസൈസുകൾ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷമേ നീന്തലിനു ഇറങ്ങുകയുള്ളു ഭക്ഷണം എക്സസൈസിന് മുൻപ് ലഘുവായരീതിയൽ സ്നാക്സോ മറ്റു വെള്ളം ഡ്രിങ്ക്സുകളോ ഉപയോഗിക്കാറുള്ളൂ കട്ടിയായ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നീന്തൽ പരിശീലനം നടത്താൻ പാടില്ലാത്തതാണ്